ഹലോ ഗ്രിഗറി അല്ലേ എടാ ഞാൻ ജോയാണ് എന്നാ ഉണ്ടടാ വിശേഷമൊക്കെ ഇപ്പം ഈ ആഴ്ച നിനക്ക് എന്തേലും പ്ലാൻ വല്ലതും ഉണ്ടോ എടാ നമ്മുടെ ഈ ഐ എസ് ലൊക്കെ നടക്കുവല്ലേ ഞാൻ വിചാരിച്ചു ഈ ഒരു ശനിയാഴ്ച നമ്മുടെ കേരളത്തിൻ്റെ കളി നടപ്പുണ്ട് മറ്റേ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ മറ്റേ നമ്മുടെ ഈ ഗോവെയായിട്ട് അപ്പം നല്ല കളിയായിരിക്കും ഈയിടെയായിട്ട് കേരളത്തിൻ്റെ കളി അത്ര വലിയ ഇതില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കളി ജയിക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പം പോയി കണ്ടാലോന്ന് ആലോചിക്കുക ഹലോ കേൾക്കുന്നില്ലേടാ എടാ ആ എടാ ഈ ശനിയാഴ്ച നമുക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ പോയാലോന്ന് ആലോചിക്കുക എടാ നമ്മൾ നമുക്ക് ഇവിടന്നൊരു അഞ്ച് മണിയാവുമ്പോഴേലും ഇറങ്ങേണ്ടി വരും ആ അപ്പം നിനക്ക് ആ അത് ശരിയാണ് നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത് അപ്പം നിനക്ക് എന്തേലും പരിപാടിയോ അങ്ങനെ എന്തെലുമുണ്ടോ മാറ്റിവെക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെയല്ലേ ഓക്കേ ഡാ അങ്ങനെയാണേൽ നമുക്ക് പയ്യെ ടിക്കറ്റൊക്കെയങ്ങ് ബുക്ക് ചെയ്തേക്കാം ടിക്കറ്റ് പിന്നെ ഒരു എണ്ണൂറ് ഒക്കെയാകും പിന്നൊരു ഒരു രണ്ടായിരം രൂപയൊക്കെ കയ്യിൽ വെച്ചോ നമുക്ക് ഈ ഫുഡിനും പെട്രോളൊക്കെ ആയിട്ട് അത്രയൊക്കെ ആകുമായിരിക്കും ആ അതൊക്കെ അത്ര ആവും പിന്നെ താമസം അങ്ങനെ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല തിരിച്ചുവരാനാണ് പ്ലാൻ ആ പറഞ്ഞോ പറഞ്ഞോ അന്ന് തന്നെ തിരിച്ചുവരാനാണ് പ്ലാൻ ഇട്ടെക്കുന്നത് ഇനി അവിടെ എന്തേലും കൂടുതൽ കറങ്ങാനും അങ്ങനെ എന്തെലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സ്റ്റേയോ എന്തേലും സെറ്റ് ചെയ്യാലോ പിന്നെ ഇപ്രാവശ്യത്തെ കളി നമ്മുടെ ഭയങ്കര മോശമായിട്ടാണ് പോകുന്നത് അപ്പം ഒത്തിരി പ്രതീക്ഷ ഒന്നും വേണ്ട മിക്കവാറും ഗോവ ജയിക്കുമായിരിക്കും ഇപ്പം ഈ സീസൺ നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ജയിച്ചൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്നാലും ചെറിയൊരു പ്രതീക്ഷയുണ്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്ന കളി വിജയിക്കുവാണേൽ ഒരു സന്തോഷമായിരുന്നു ആ ആ ആ വലിയ സുഖം ഒന്നുമില്ലടാ മറ്റേ ഈ എങ്കിൽ അവിടെ ഫാനും സാധനം ഒന്നുമില്ല അപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണ് പിന്നെ വേറെന്നാ ഉണ്ട് വിശേഷം ഓക്കേ ഡാ എന്നാൽ പിന്നെ ശനിയാഴ്ച കാണാം നമുക്ക് ഓക്കെ ഡാ ശരി